ഹലോ ഹലോ

അതെ അതെ വയറിങ് ചെയ്യുന്നയാളാരുന്നല്ലോ അതേലോ അതെ അതെ എൻ്റെ പേര് ഗിനിക്ക്

ആ നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾ സാധനം മേടിച്ചു തരുന്ന രീതിയിലും നമ്മൾ ചെയ്തുകൊടുക്കുന്നുണ്ട്

കഴിഞ്ഞു ഓക്കേ

ആ ഓക്കെ ആ ഓക്കെ ആ പറഞ്ഞാൽ മതി ബാക്കി ഡീറ്റൈൽസ് ഒന്ന് പറയാവോ നമുക്ക് ഇത് എത്ര സ്ക്വയർ ഫിറ്റായിരുന്നു വീട് ആയിരത്തഞ്ഞൂറല്ലേ നമുക്ക് എങ്ങനത്തെ ലൈറ്റുകളൊക്കെ ആണ് ഇടുന്നത് നമ്മുടെ എൽ ഇ ഡി ലാമ്പ് ഒക്കെയാണോ വെക്കുന്നത്

ചുറ്റിനും വേണം പെരയ്ക്ക് ചുറ്റും വേണം അല്ലേ ഓക്കെ നമ്മൾ ഫാൻ എങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇടുന്നത് ഓക്കേ സീലിങ്ങ് ഫാനായിട്ടാണോ ഉപയോഗിക്കുന്നത് അതോ സാ സീലിങ്ങ് ഫാൻ ആണല്ലേ ഓക്കെ ആ ആ ഓക്കെ ആ

നമുക്ക് രണ്ട് നെ നമ്മുടെ വീട് നമ്മുടെ വീട് രണ്ട് നില വീടാണോ ആ അതെ അല്ലെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഉണ്ടല്ലേ

പിടിപ്പിക്കണം അല്ലേ ആ നമ്മൾ പുര ചെയ്തപ്പോഴും അതിനുള്ള ഇത് ചെയ്ത് ചെയ്തേക്കുന്നത് അങ്ങനെ ആണോ ആ അതെ അല്ലെ ചെയ്തേക്കുന്നത് ആ അങ്ങനെ ഒരു അങ്ങനെ ഒരു കുഴപ്പം ഇല്ല മാഡം ഞങ്ങൾ വന്ന് ചെയ്ത് തരാം സീലിങ്ങ് സീലിങ്ങ് സീലിങ്ങ് ചെയ്ത് തരണം അല്ലേ ആ അത് കുഴപ്പം ഇല്ല മാഡം ഞങ്ങൾ ചെയ്ത് തരാം നമ്മുടെ ഇത് ആയിരത്തി അ എന്തോ ആ കോസ്റ്റലി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്ത് തന്നേക്കാം അ ആ ബിൽ പേ ചെയ്ത തരത്തെ ഉള്ളു അല്ലേ അ ആ അത് കുഴപ്പം ഇല്ല മാഡം ഞങ്ങൾ തന്നെ സാധനം മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ കൊണ്ട് സെറ്റ് തന്നേക്കാം ആ നമുക്ക് ഒരു സാധനങ്ങളും പിന്നെ ചെക്ക് തരാം അല്ലെ ആ മതി മതി അങ്ങനെ തന്നാൽ മതി ആ ഓക്കെ ഓക്കെ ഞങ്ങൾ ആ രീതിയിൽ തന്നാൽ ആ രീതിയിൽ തന്നാൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എത്ര ആണ് ആയിരത്തി അ ആ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടല്ലേ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആകുമ്പം സാധനങ്ങളും ഞങ്ങൾ എല്ലാം കൂടെ കൂട്ടി ഒര് അഞ്ച് ലക്ഷം രൂപക്ക് ചെയ്ത് തരാം ആ അഞ്ച് ലക്ഷത്തിന് അല്ല നമുക്ക് അത് വന്നതിന് വന്നതിന് ഡിസ്കൌണ്ട് ചെയ്ത് തരാം ഒന്ന് ചെയ്ത് കഴിയുമ്പഴേ ഡിസ്കൌണ്ട് ചെയ്ത് തന്നേക്കാം ആ ഡിസ്കൌണ്ട് ചെയ്ത തന്നേക്കാം അത് നമ്മൾ ചെയ്ത് തരും നമുക്ക് ഇങ്ങനെ വർക്ക് തന്നു കഴിയുമ്പം നമ്മൾ അത് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഡിസ്കൌണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഞ്ച് പത്തു പേരെ ആ ആ എല്ലാം മോഡേൺ രീതിയിൽ തന്നെ ചെയ്ത് തന്നേക്കാം ഓക്കെ താങ്ക്യൂ താങ്ക്യൂ